ഇപ്പോൾ പാമ്പ് കടിച്ച ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പൻ എന്ത് ചെയ്യും പരന്ന സ്ഥലത്ത് എന്തു ചെയ്യും ഇരുത്തും കാലിൽ കടിയേറ്റു പറഞ്ഞാൽ മുകളിലേക്ക് വിഷം കയറാതിരിക്കാണ്ട് കാല് കെട്ടി അവിടെ കഴുകി കൊടുത്ത് കാലിൽ ലേശം അത്യാവശ്യം ടൈറ്റില്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുത്ത് മൂപ്പൻ എന്തെങ്കിലും ആൾ മയങ്ങും മുൻപേ എന്ത് ആൾ ചോദിക്കും ഏത് പാമ്പാണ് കടിച്ചത് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എന്തെങ്കിലും ചോദിക്കും അപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ ഇവിടെ അടുത്തു തന്നെ ഒരു വൈദ്യശാ ഒരു വൈദ്യൻ ഉണ്ട് അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും ഇന്ന പോലെ പാമ്പ് എന്ന് കടിയേറ്റു എന്താ ചെയ്യേണ്ടത് ആൾ മയങ്ങണേനു മുൻപേ കാണിച്ചാൽ എത്തിച്ചാൽ അത്രയും നല്ലത് മയങ്ങി കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് എന്തായാലും വേഗം എത്തിക്കുമ്പം വൈദ്യന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കും അവരെ അതിനനുസരിച്ച് അവിടെ ട്രീറ്റമെ ട്രീറ്റ്മെൻറ് അതിന് പറ്റിയ അവർ ട്രീറ്റ്മെൻറ് ചെയ്യും